ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് മലയാളം സെക്കൻ്റിലുണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു പാത്തുമ്മയുടെ ആട് അത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ഒരു ആത്മകഥാപരമായിട്ടുള്ള ഒരു ബുക്കായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ സഹോദരിയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ആടിനെക്കുറിച്ചുള്ള ഒരു ബുക്കായിരുന്നു അത് അത് വളരെ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു പാത്തുമ്മയുടെ ആട് അതിൻ്റകത്ത് അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളും അവരുടെ വീട്ടിലെ ദാരിദ്രമൊക്കെ ഉണ്ട് പറയുന്നുണ്ട് എന്നാൽ അതെല്ലാം ഒരു കോമഡിയിലാണ് നമ്മുടെ എഴുത്തുകാരൻ അതിൻ്റകത്ത് കാണിക്കുന്നത് തന്നെയല്ല അവരുടെ ആട് നമ്മുടെ കഥാകാരൻ്റെ റൂമിൽ കയറി അത് ആട് അവിടെ നിന്ന് ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുക അതുമല്ല പിന്നെ അത് വീട്ടിലുണ്ടാക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ അത് ആട് കാരണം വീട്ടുകാർ തമ്മിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ അവരുടെ വീട്ടിലെ ദൈനദിനം നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് പാത്തുമ്മയുടെ ആടെന്നു പറഞ്ഞ ബുക്കിൽ അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് അതെനിക്ക് വളരെയധികം തമാശ നിറഞ്ഞൊരു ബുക്ക് എന്നെ ഒത്തിരി ചിരിപ്പിച്ച ഒരു പുസ്തകമാണ്